സാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയ്ക്കൊപ്പം മലയാള ഭാഷയുടെ ഉപയോഗത്തിനും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മള് ഇപ്പം മലയാള ഭാഷ ഇപ്പം ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം പണ്ടൊക്കെ എല്ലാ വലിയ വലിയ പരീക്ഷക്കൊന്നും ഇപ്പോൾ അത് പ്രാദേശിക ദേശീയ ഭാഷയായിട്ട് മലയാളം അംഗീകരിക്കണമെന്നുള്ള ആവശ്യത്തിലാണ് അത് അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം നമ്മളിപ്പം ഈ ഇൻ്റർനെറ്റിലൂടെ ഒക്കെ ആണേലും നമുക്ക് ഇപ്പം മലയാള ഭാഷ ഉപയോഗിക്കാം നമുക്ക് വാമൊഴിയായിട്ട് പറഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ പ്രിൻ്റ് ആയിട്ട് വരുന്നു അല്ലാതെ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല എല്ലാ എല്ലാറ്റിലും മലയാള ഭാഷക്ക് ഇപ്പമൊരു പുതിയ മാനം കണ്ടെത്തിയതാണ് ഇപ്പം എല്ലാ ഗവൺമെൻ്റ് ഓഫീസിലൊക്കെ ആണേലും മലയാള ഭാഷ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ മലയാള ഭാഷയ്ക്ക് പുതിയ മാനങ്ങൾ ചില പരീക്ഷകളൊക്കെ മലയാളം മലയാളത്തിലെഴുതുവാണെങ്കിൽ കൂടുതല് മെറിറ്റ് മെറിറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മള് സിവിൽ സർവീസ് പരീക്ഷക്കൊക്കെ ആണെങ്കിലും അവിടെയും ഓപ്ഷൻ ഉണ്ട് മലയാളത്തിൽ എഴുതുക എന്നുള്ളത് അതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മലയാള ഭാഷയൊരു പ്രത്യേക പ്രാദേശീയ അല്ല ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കപ്പെട്ട നിലയിലായി എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളം ഇംഗ്ലീഷും മറ്റുള്ള മറ്റുള്ള പ്രദേശത്തെ ഭാഷകളെപ്പോലെതന്നെ നമ്മുടെ കേരളത്തില് മലയാള ഭാഷക്കാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാം എല്ലാം സ്കൂളിലൊക്കെയാണേലും മലയാളം സബ്ജക്റ്റ് ഒരു ഒരു മസ്റ്റായിട്ട് തീർന്നിരിക്കുകയാണ് അതെങ്ങനെ എടുക്കണമെന്നുള്ള ഒരു പേപ്പറ് അങ്ങനെ അതേപോലെ നമ്മുടെ മലയാളഭാഷ കൂടുതൽ നമുക്ക് സംസാരത്തിലായാലും എഴുത്തിലായാലും രണ്ടും രണ്ട് വാമൊഴിയും വരമൊഴിയും രണ്ടും വ്യത്യസ്ത ഭാഷകളാണ് നമ്മള് സംസാര ഭാഷയല്ല എഴുത്ത് ഭാഷ അന്നേരം നമുക്ക് നമ്മുടേതായ രീതിയില് നമ്മുടെ ഭാഷകള് സംസാരം ഇച്ചിരി മെച്ചപ്പെടുത്താനും നല്ല രീതിയില് വാക്കുകൾ പ്രയോഗിക്കാനും എഴുത്ത് എഴുത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ പറയാനും ഉപയോഗിക്കാം അങ്ങനെയൊരു ഒരു ഉയർച്ചക്കുള്ള ഒരു ഉയർച്ച ഉണ്ട് എപ്പഴും ഒരു ലോക്കൽ ഭാഷയായിട്ട് കിടക്കാതെ അതിൻ്റെ ഒരു പുതിയൊരു തട്ടിലോട്ടും കൂടെ ഉയർന്ന് അങ്ങനെ നമ്മുടെ ഭാഷയും മറ്റുള്ള ഭാഷകൾക്കൊപ്പം ഒര് സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇപ്പം യുട്യൂബ് ഉപയോഗിക്കുകയാണേലും ഇൻ്റർനെറ്റിലൊക്കെയാണേലും നമുക്ക് മലയാളത്തില് ഓരോരോ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് അതിൻ്റെ ആൻസറ് കണ്ടുപിടിക്കാം എല്ലാം ഇംഗ്ലീഷിൽ മാത്രമല്ല നമുക്കിപ്പം മലയാളം വേണമെങ്കിൽ മലയാളത്തിൽ കണ്ടുപിടിക്കാം ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം മംഗ്ലീഷ് വേണമെങ്കിൽ മംഗ്ലീഷ് വെക്കാം ഒക്കെ എല്ലാം അതിനൊക്കെ ഓരോരോ പുതിയ പുതിയ ഇപ്പോൾ എത്ര വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി ഉയർച്ചയില്ലാത്തവർക്കാണേലും ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും അതൊക്കെ വലിയൊരു ഒരു നന്മയാണ് നല്ലൊരു അനുഗ്രഹമാണ് നേരത്തേയൊക്കെ ആണേൽ വളരെ കൊറച്ച് പേർക്ക് മാത്രം വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളു ഇപ്പോൾ ഏറ്റവും ചെറിയ കുഞ്ഞു കുട്ടികൾക്കാണെലും പ്രായമായവർക്കാണേലും പ്രായഭേദമന്യേ എല്ലാവർക്കും ഇത് കൈകാര്യം ചെയ്യാനും അത് അനുസരിച്ച് നമ്മുടെ ജീവിതം തന്നെ ക്രമപ്പെടുത്തുവാനും നമ്മള് ഒരു പുതിയ മേഖലയിലേക്ക് കയറാനും വരാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് പണ്ടൊക്കെ ഒന്നും അറിയാൻപാടില്ലാത്തവർക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവർക്കും ഫോണുപയോഗിക്കാനും

സാമ്പത്തികമായിട്ടും ഒക്കെ ഇതിൽ വഴി ഒക്കെ ഓരോരോ ചാനലുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് പൈസ സമ്പാദിക്കാനും അതുപോലെ സാമ്പത്തികമായിട്ട് വരാനും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഒരു ഒരു പ്രത്യേക ഒരു ഒരു ഒരു പുതിയ ഒരു പുതിയ പുതിയ മാനങ്ങളാണ് ജീവിതത്തിലെ ഓരോരോ പുതിയ മാനങ്ങളിലേക്ക് എല്ലാവരും ചെന്നെത്തുകയാണ് ചെയ്യുന്നത്